ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഭിക്ഷാടനം ഇപ്പം ഏതു നാട് എടുത്താലും ഇന്ത്യന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭിക്ഷാടനം വളരെയധികം കൂടി വരുന്ന സമയം സ്ഥലമാണ് നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ ഭിക്ഷാടനത്തിന് പറഞ്ഞുവിടുന്ന കുറെയധികം മാതാപിതാക്കളന്നെയുണ്ട് അവരെ വേണം ആദ്യം പറയാന് കാരണം അവര്ക്ക് രണ്ടര പ്രാവശ് പറയാനുള്ള അവസരം എന്ന് വെച്ചാൽ അവര്ക്ക് ചിലപ്പോൾ ഗതിയില്ലാണ്ടാവും ഈ പിള്ളാരെ ഭിക്ഷാടനത്തിന് ഇരുത്തണത് പക്ഷേ ഗതിയില്ലെങ്കിലും ഭിക്ഷാടത്തിന് പകരം വിടണതിന് പകരം അവരെ ഗവണ്മെന്റ് സ്കൂളില് ചേര്ത്ത് പഠിപ്പിക്കാന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടേത് എന്നാൽ തന്നെ ഈ സമൂഹത്തില് നിന്ന് കുട്ടികളുടെ ബാലവേല ഒഴിവാവത്തൊള്ളൂ നിങ്ങൾ ഈ ഭിക്ഷാടനം നിര്ത്തണം ഈയും ഈ പിള്ളാര്ക്കരോട് ജോലി ചെയ്യണ്ട സമയമല്ല ഈ ചെറിയ കുട്ടികള് ഇപ്പോൾ ജോലി ചെയ്യേണ്ട സമയമല്ല അവര് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം എന്നാലാണ് നമ്മള്ക്ക് പറ്റുള്ളൂ ഈ ബാലവേല ചെയ്യണോരെ ശരിക്കും പറഞ്ഞാൽ കേസെടുത്ത് ജയിലാക്കന്നെ ചെയ്യണം ഇതെങ്ങനെ നിര്ത്താന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ എല്ലാവര്ക്കും വിദ്യാഭ്യാസം കൊടുത്താൽ ഈ ബാലവേല നിൽക്കും പിന്നെ പോലീസ് ഇവിടെ കര്ശന നിയമം പാലിക്കപ്പെട്ടാൽ ഈ ബാലവേല നിര്ത്തപ്പെടാം ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ ബാലവേലയില് നിന്ന് നിര്ത്താനുള്ള ആ സാഹചര്യം ഒക്കെ ഉണ്ടാവുള്ളൂ